ഇപ്പം പാർലമെന്റിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ സംസഥാനത്ത് പ്രതിനിധീകരിച്ച് നമുക്ക് പറയാനുണ്ടങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ വിദ്യാഭ്യാസം പറയാം സ്ത്രീ സുരക്ഷ പറയാം പിന്നെ തുല്ല്യത അവകാശം പറയാം പിന്നെ നമ്മുടെ റോഡിൻ്റെ കാര്യം പറയാം ഇപ്പം ഏറ്റവും കൂടുതല് എല്ലാടത്തും നല്ല റോഡുകളൊക്കെ ഉണ്ട് എന്നാലും ചില ഇട റോഡുകളൊക്കെ ഭയങ്കര കുണ്ടും കുഴി ആയിട്ടുള്ള റോഡ്കളണ്ട് പിന്നെ വീടില്ലാത്തവരെ കുറിച്ച് പറയാം ഒത്തിരി ആൾക്കാര് സ്ഥലവും വീടും ഇല്ലാതെ നമ്മുടെ നാട്ടില് താമസിയ്ക്കണ ഒത്തിരിയോ ആൾക്കാരൊണ്ട് രോഗികളായി കിടപ്പ് ചു ചികിത്സ സഹായം ആവശ്യമുള്ള എത്രയോ ആൾക്കാര്ണ്ട് അവരെ കുറിച്ച് പറയാം അപ്പം ഇങ്ങനെ ഒന്നും ഇല്ലാതെ ആൾക്കാര് ശ്രദ്ധിക്കാതെ ഞാനൊരു കാര്യം പറയട്ടെ നമക്ക് ഇപ്പം റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് അരി കിട്ടുവൊള്ളു പക്ഷേ റേഷൻ കാർഡും ഇല്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരെ ഒക്കെ നമ്മള് പിന്നെ മനസിലാക്കണം ഒര് നേരത്തെ അന്നത്തിന് വേണ്ടീട്ട് നമക്കൊരു മാസം പിന്നെ ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ നാല് കിലോ അരി മറ്റോ കിട്ടും എന്ന് തോന്നുന്നു നാലൊ രണ്ടോ അങ്ങനെ പക്ഷേ അതുപോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പം അവരെ ഒക്കെ നമ്മള് പിന്നെ അവരെ ഒക്കെ കണ്ട് പിടിച്ച് അവർക്കു വേണ്ട സഹായം ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് വേണം അപ്പം അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു സംസാരം വേണം പിന്നെ കുറെ മദ്യശാലകളെന്തിനാ ഇങ്ങനെ കുറെ മദ്യശാലകള് തുറന്ന് വെയ്ക്കണ്ട ആവശ്യമെന്തിനാണ് സർക്കാരിന് അപ്പം വേറെ ജില്ലകള് വേറെ സംസ്ഥാനങ്ങളുമുണ്ട് അവിടെയും മദ്യം വിയ്ക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ മദ്യം വിയ്ക്കുന്നില്ല ഒരു ഒരു ലിറ്ററിന് അറുനൂറ്റി മുപ്പതോ മറ്റോ രൂപയാണ് ആ രൂപ കൊടുത്ത് ഒരു വീട്ടിലെ സമാധാനം മുഴുവൻ കളയുന്നു ഒരു മനുഷ്യൻ പണി എടുക്കാൻ പോവുമ്പൊ അയാൾക്ക് തൊള്ളായിരം എണ്ണൂറ് രൂപയ ഒരു ദിവസം കൂലി ഒരു സാധാരണക്കാരന് അപ്പം അതിൽ നിന്ന് ഒരു ലിറ്ററ് വങ്ങുമ്പം അറുന്നൂറ്റി സംതിങ് രൂപ പോയിട്ടുണ്ടെങ്കില് ആ കുടുംബത്തിലേക്ക് എന്താണുള്ളത് മിച്ചം അപ്പം അതൊക്കെ ഒന്ന് അടച്ചു പൂട്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എന്നൊക്കെയാണ് എൻ്റെ അഭിപ്രായം കെട്ടോ ഞാനാ ഞാനായിരുന്നു അങ്ങനെ പറഞ്ഞേനെ